ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും ആദായമുണ്ടാക്കുന്ന വിളകൾ അത് ഏതൊക്കെയാണെന്നു ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഇവിടെയൊന്നും അധികമൊന്നും കൃഷിയും കാര്യങ്ങളും ഒന്നും ഇല്ല അ നമ്മള് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഓരോരോ കാര്യങ്ങളും മറ്റുമല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളധികവും പച്ചക്കറിയും മറ്റുള്ളതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കൈപ്പ തക്കാളി പച്ചമുളക് വഴുതനങ്ങ ചീര മത്തന് ചിരങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോള് നമുക്കു ജൈവ വളമിട്ടു നമുക്ക് അത് ഉപയോഗിക്കാനും സാധിക്കും പക്ഷേ ശരിക്കു നമ്മള് എന്തൊക്കെ വിളകളാണെന്നു ചോദിച്ചാൽ ഈ പച്ചക്കറികളെല്ലാം തന്നെ നമുക്കു നമ്മടെതായ രീതിക്കു നമ്മളുണ്ടാക്കി കഴിക്കുമ്പോള് പുറത്തുവന്ന് ഈ രാസവസ്തുക്കളും മറ്റും ചേർത്തിട്ടു വാങ്ങിക്കുന്ന ആ ഒരു സാധനങ്ങളേക്കാൾ എത്രയോ ബെറ്ററായിട്ടുള്ള എത്രയോ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യത്തിനു ഹാനികരം വരാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങളും മറ്റും നമുക്കു കഴിക്കാനായി സാധിക്കും ഇന്നെല്ലാവരും നേരെ കടയിൽ പോവുക പൈസ കൊടുക്കുക സാധനം വാങ്ങുക വീട്ടില് വന്നിട്ട് ഇതാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും പുറത്തു പോവുക ഫുഡ്യക്കുക വീട്ടില് വരിക ഇതാണല്ലോ ഇന്നത്തെ രീതി പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നു പച്ചക്കറികള് നമുക്കിപ്പോള് അരി സാധനങ്ങളൊക്കെ നമുക്കു വേണമെങ്കിൽ പണ്ടുള്ള പോലെ പാടവും മറ്റുമൊക്കെയാക്കി ചെയ്യാം പക്ഷേ അതിനൊന്നും ഇന്ന് ആർക്കും നേരമില്ല അരി ഉപയോഗിക്കാത്തവരും ചോറുപയോഗിക്കാത്തവരുമായി ഇന്നു ചുരുക്കം ചില ആളുകളേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും അത് ഏറ്റവും കൂടുതൽ ആദായമുണ്ടാക്കുന്ന ഒന്നാണെങ്കിലും പക്ഷെ ഇന്നാരും അതു ചെയ്യാൻ മെനക്കേടു കൂടുതലായതുകൊണ്ട് അത് പണികൾ ഓവറായതുകൊണ്ടുതന്നെ ആരും അതിനു താല്പര്യം കാണിക്കുന്നില്ല അപ്പോള് അതിനേക്കാൾ കൂടുതലായിട്ട് ഇന്നത്തെ ഈ ഒരു കാലത്തു നമുക്കു വീടിൻ്റെ മുകളിലായാലും ടെറസിൻ്റെ മുകളിലായാലും എവിടെയും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമാണു പച്ചക്കറികള് അപ്പോള് പച്ചക്കറികളൊന്നോ രണ്ടോ സാധനങ്ങളില് തുടങ്ങി നമുക്ക് ഒരുപാട് പച്ചക്കറികളിലേക്ക് എത്താനും അതു പുറത്തു കൊണ്ടുപോയി വിൽക്കാനും എല്ലാത്തിനും കഴിയുന്ന ഒന്നാണത് നമുക്കു നല്ലവണ്ണം പൈസയുണ്ടാക്കാൻ പറ്റും നല്ല സാധനം കഴിക്കാനും പറ്റും